നമ്മളിപ്പോൾ വിദ്യാഭ്യാസം തൊഴിലിനെ അങ്ങനെ പല മേഖലകൾ നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ കുറേ അവസരങ്ങളുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പറയുമ്പോൾ നമ്മുടെ പല സർക്കാർ ഓഫീസുകളിൽ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി നമുക്ക് വിദ്യാഭ്യാസത്തിനിപ്പോൾ നമുക്ക് അടിസ്ഥാനപഠനം കഴിഞ്ഞ് ഇപ്പോൾ പത്താം ക്ലാസായിരിക്കും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പി എസ് സി പഠിക്കാനായിട്ട് കുറേ വഴികളുണ്ട് എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ ഇവിടെത്തന്നെ ഗവൺമെൻറ്റ് ഒന്ന് രണ്ട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് ഒന്ന് രണ്ട് മൂന്നാല് സ്ഥാപനങ്ങളുണ്ട് അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് പി എസ് സി പഠിപ്പിച്ച് തരും ആറ് മാസത്തെ കോഴ്സുകളുണ്ട് ഒരു വർഷത്തെ കോഴ്സുകൾ അങ്ങനെ അതല്ലാ തൊഴിലധിഷ്ഠിതമായ കോഴ്സുകള് വേറെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഡി ജി സി എ ടൈപ്പ് ടൈപ്പ് റൈറ്റിങ്ങ് കോഴ്സുകള് അങ്ങനത്തെ കോഴ്സുകള് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് ഒരു തൊഴില് പഠിക്കാൻ വേണ്ടീട്ട് കൈത്തറി അങ്ങനെത്തെ കോഴ്സുകള് അങ്ങനെ നമുക്ക് ഐ ടി ഐ ടി ഐ വഴിയൊക്കെ കുറേ കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സർക്കാര് അല്ലെങ്കിൽ നമ്മടെ മുൻസിപ്പാലിറ്റി വഴിയൊക്കെ നമുക്ക് കുറേ കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ തൊഴിലിൻ്റെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പഠനത്തിൻ്റെ നിലവാരം കൂട്ടി ഇപ്പോൾ പരീക്ഷ എഴുതിയിട്ട് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചിട്ട് അങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതനിലവാരം കൂട്ടാൻ പറ്റും ഇപ്പോൾ നമുക്ക് മത്സര പരീക്ഷക്ക് ഞാൻ പറഞ്ഞപോലെ ഇങ്ങനത്തെ കോഴ്സ് അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഡി ജി സി എ കോഴ്സുകളെന്നൊക്കെ പറയുമ്പോൾ ക്രാഷ് കോഴ്സ് ഒരു മൂന്നു മാസത്തെ കോഴ്സുകള് അങ്ങനെയൊക്കെയാണ് അപ്പോൾ പെട്ടന്ന് നമുക്ക് ഇപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ അത് പാസായിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ജോലി കിട്ടാനുള്ള ചാൻസുണ്ട് പിന്നെ അതുപോലെ വേറെയും അതില് പഠിപ്പിക്കുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റിങ്ങ് പിന്നെ പഠിപ്പിക്കണത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ചില മൈക്രോ സോഫ്റ്റ് എക്സല് വേഡ് കാര്യങ്ങള് അങ്ങനെത്തെ കാര്യങ്ങള് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു ജോലി അവസരങ്ങള് നമുക്ക് യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് കിട്ടാവുന്നൊരു കിട്ട് കിട്ടിക്കോട്ടെയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ് ഇപ്പോൾ അതുപോലെ ചില പ്രശ്നങ്ങള് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ്റില് ഒരുപാട് വേക്കൻസികളും കാര്യങ്ങളൊക്കെ വരും പക്ഷേ എന്താണ് നമുക്കതറിയാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളാണ് നമുക്ക് അതിൽ വന്നുകൊണ്ടിരിക്കണത്